ഞാനെന്റെ ഒരു കാറെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഈ പ്യു പീ എഫില് നിന്ന് ലോണെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഞാന് ചെയ്യുന്ന രീതി ഇതാണ് പീ എഫ് മെമ്പര് അത് പീ എഫ് മെമ്പര് എന്ന ഉള്ള ഇത് ബ്രൗസറില് നിന്നാണ് അത് ആ വഴി പീ എഫ് മെമ്പര് ഹോം പേജില് നിന്നാണ് നമുക്കിതെടുക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അതിനു നമ്മൾ ബ്രൗസറില് നിന്നാണ് ഈ പേജെടുക്കുന്നത് അതീ പി എഫ് നമ്പേഴ്സിനേ